ഹലോ ആ പറഞ്ഞോളൂ ചെ ടെസ്റ്റ് ചെയ്തിരുന്നോ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വന്നപ്പോഴാണോ ഇത് തുടങ്ങിയത് ആ ഓക്കെ അപ്പോൾ പുറത്ത് മാസ്ക് വയ്ക്കാണ്ടെ ഒക്കെ ആയിരിക്കും അല്ലേ പോയത് ആ ഓക്കെ ഓക്കെ ഇപ്പോൾ എവിടെയാണ് വീട്ടിലാണോ ഉള്ളത് ആ റൂമിൽ ആണല്ലേ പുറത്ത് അങ്ങനെ ആരും ആയിട്ടും അധികം സമ്പർക്കം ഒന്നും വേണ്ട കേട്ടോ ഇനി ആ പിന്നെ സാനിറ്റൈസ് കയ്യൊക്കെ ഒന്ന് ആ ഇല്ലല്ലേ ആ എന്നാൽ കോവിഡ് ആവാനാണ് സാധ്യത കൂടുതലും നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്തോളൂ ആ പോസിറ്റീവ് അവാനാണ് സാധ്യത കൂടുതൽ ഇപ്പോൾ ഇങ്ങനെ ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ആണെങ്കിൽ പോസിറ്റീവ് ആവാൻ ആണ് സാധ്യത മാസ്ക് ഒക്കെ വെച്ചിട്ട് കയ്യൊക്കെ നല്ല രീതിക്ക് തന്നെ സാനിറ്റൈസ് ഒക്കെ ചെയ്തിട്ട് നിന്നാൽ മതി മാസ്ക് ആ പുറത്ത് അങ്ങനെ ആരോടും വലിയ സമ്പർക്കം ഒന്നും വേണ്ട ഫുഡ് ഒക്കെ നല്ലവണ്ണം കഴിക്കുക പിന്നെ ഇതിന് നമുക്ക് ഇപ്പോൾ മരുന്ന് ആയിട്ട് റെഫർ ചെയ്യാൻ ഒന്നുമില്ല പാരസെറ്റാമോൾ തന്നെ കഴിച്ചാൽ മതി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫുഡ് കഴിച്ചോളൂ കേട്ടോ മാസ്ക് മസ്റ്റ് ആണ് നമുക്ക് പതിനാല് ദിവസം ആണ് ക്വാറൻറ്റയിനിൽ ഇരിക്കേണ്ടി വരുന്നത് ആ പതിനാല് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും അതുപോലെ തന്നെ ചെയ്യേണ്ടി വരും പതിനാല് ദിവസം ഒന്നുകൂടെ ഇരിക്കണം അത് കഴിഞ്ഞ് ഇത് നെഗറ്റീവ് ആവുന്നത് വരെ പരമാവധി പുറത്ത് ഒന്നും പോകാണ്ട് ശ്രദ്ധിക്കുക പിന്നെ വീട്ടുകാരോട് ആണെങ്കിലും ആ പോസിറ്റീവ് അതിപ്പം വീട്ടിലുള്ളവരുമായിട്ടും ഒരു മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ നിന്ന് സംസാരിക്കുവാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ തന്നെ ഒരു ഒരു മീറ്റർ ഡിസ്റ്റൻസ് വിട്ട് നിൽക്കണം കേട്ടോ

നിങ്ങൾ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ ആ ഓക്കെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ ആ അപ്പം ആ ഓക്കെ ഓക്കെ വേറെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ആ ഓക്കെ പരമാവധി പുറത്തേക്ക് ഒന്നും ഇറങ്ങാണ്ട് ശ്രദ്ധിക്കുക ആ ഓക്കെ എന്നാൽ